ഹലോ ഹലോ

ആണോ ആ ആ ആ ഞങ്ങൾ ഞങ്ങൾ കൊടുത്ത അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നോ ആ ആ നിങ്ങൾ ഏത് ലോൺ എടുക്കാനാണ് വിചാരിക്കുന്നത് ആ ആ ഇപ്പം നിലവിലിപ്പോൾ പലിശ കുറഞ്ഞൊരു ലോൺ ഉണ്ട് അഗ്രികൾച്ചറൽ ലോണിൻ്റെ ഇടയിലൊരു ഗോൾഡ് ലോൺ വരുന്നുണ്ട് അപ്പോൾ അതിനെ അഗ്രിക്കൾച്ചർ ലോൺ എന്നാണ് പറയുന്നത് അപ്പോൾ അതിലിപ്പോൾ നാ ആ അതിലിപ്പോൾ നാല് ശതമാനം പലിശ നിരക്കിൽ പന്ത്രണ്ട് പവൻ വെച്ചാലും നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ കിട്ടും അതെന്ന് പറയുമ്പോൾ അതിൽ ആ ലോൺ കിട്ടാൻ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അമ്പത് സെന്റ് സ്ഥലം ഉണ്ടായിരിക്കണം നിങ്ങളുടെ പേരിൽ അപ്പോൾ അങ്ങനെ ആ അപ്പോൾ ആ ഒരു ലോൺ ഉണ്ട് പിന്നെ പിന്നെ പലിശ നിരക്ക് കൂടിയതാണ് ഉള്ളത് ഏഴ് ശതമാനം അല്ലെങ്കിൽ ഏഴര ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് അപ്പം ഇത് രണ്ടും ഒരു വർഷത്തേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റിത്തേത് എന്ന് പറയുമ്പോൾ നാല് ശതമാനം പലിശ നിരക്കാണെങ്കിലും നിങ്ങൾ ഒരു വർഷം കൂടുമ്പോൾ അത് പുതുക്കുക അല്ലെങ്കിൽ തിരിച്ചടയ്ക്കുകയോ വേണം അപ്പം നിങ്ങൾ പുതുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ നാല് ശതമാനം പലിശ നിരക്ക് കൂടും പറ്റിയിട്ടില്ലെങ്കിൽ ആ പുതുക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങ് നിങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടും നിങ്ങൾ ഏതാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ നിങ്ങൾ അതിനിപ്പോൾ ഒരു നിങ്ങൾ നികുതിയൊക്കെ കൈവ ഈ സ്ഥല ഭൂമിയുടെ കൈയവകാശ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലേ ആ അതും പിന്നെ നികുതി ഷീറ്റ് ഉണ്ടെങ്കിൽ അതും കൊണ്ട് വരണം പിന്നെ ഒരു പന്ത്രണ്ട് പവനും എന്തായാലും ഈട് വയ്ക്കേണ്ടേ അപ്പോൾ അതും കൊണ്ട് വരണം പിന്നെ അമ്പത് സെന്റ് സ്ഥലം നിങ്ങളുടെ പേരിൽ ഉണ്ടോ എന്ന് അറിയേണ്ടേ അതിനാണ് നികുതി ഷീറ്റും അതൊക്കെ വേണ്ടത് അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ അതൊക്കെ കൊണ്ട് വരണം ആ നിങ്ങൾ ഏത് ലോൺ ആണ് ഇപ്പോൾ എടുക്കുന്നത് നിങ്ങൾ ഭൂ ഭൂമിയുണ്ടോ അത്ര അമ്പത് സെന്റ് ഭൂമിയുണ്ടോ നിങ്ങൾക്ക് ആണോ എന്നാൽ പിന്നെ അത് എടുക്കുവാണെങ്കിൽ അത് കൊണ്ട് വന്നാൽ മതി പിന്നെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം പിന്നെ അത് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾ പുതുക്കേണ്ടി വരും പലിശയും അതിൻ്റെ മുതലും ഒരു ഒരുമിച്ചൊരു സംഖ്യ ഉണ്ട് അത് അടച്ചിട്ട് വേണം നിങ്ങൾക്ക് അത് അത് പുതുക്കാൻ അങ്ങനെ പുതുക്കിയില്ലെങ്കിൽ പിൻ പിറ്റത്തെ വർഷം പലിശ നിരക്ക് കൂടും നിങ്ങൾക്ക് പലിശ കൂടുതൽ അടയ്ക്കേണ്ടി വരും അപ്പോൾ അത് അങ്ങനെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോൺ എടുക്കാം

ആ എന്നാൽ നിങ്ങൾ നാളെ ബാങ്കിലോട്ട് ഒന്ന് വന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ഇവിടുന്ന് സംസാരിക്കാം ആ ഓക്കെ